അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കുന്നതാണോ ഇലക്ട്രോണിക് പതിപ്പ് പതിപ്പുകള് വായിക്കുന്നതാണോ ഇഷ്ടം എന്ന് ചോദിച്ചാല് ബുക്ക് ബുക്ക് തന്നെയാണ് കൂടുതൽ വായിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക്കിനേക്കാളും കൂടുതലായിട്ടും ചെറുപ്പം മുതലേ നമ്മള് ബാലരമ അമര് ചിത്രകഥ അങ്ങനെയുള്ള ചെറിയ ചെറിയ ബുക്കുകള് മുതലേ നമ്മള് വായിക്കാറുണ്ട് അതൊക്കെ വായിക്കുമ്പോൾ അതിലൊക്കെ പിച്ചറ് പിച്ചറും കൂടെ ഉണ്ടാവും ആ പിച്ചറും കൂടി കണ്ടു കഴിയുമ്പോൾ നമുക്ക് വായിക്കുമ്പം നല്ല രസമാണ് പിന്നെ തുടരും എന്ന് വരുമ്പോഴായിരിക്കും ഒരു സങ്കടം പിന്നെ അടുത്താഴ്ച വരെ നമ്മളത് നോക്കിയിരിക്കും കഥ വായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ബുക്കുകൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ വായിക്കാറുണ്ട് ബുക്കിന് വേണ്ടിയിട്ട് പോകാറില്ല സ്കൂളില് കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലൈബ്രറിയിൽ നിന്ന് ടീച്ചേഴ്സ് ബുക്കുകള് കൊടുത്ത് വിടും അപ്പോൾ അവര് വായിക്കാത്ത സമയത്ത് നമ്മൾ ഫ്രീ ടൈമില് അതില് നോക്കി വായിക്കാറുണ്ട് പിന്നെ ഫേയ്സ്ബുക്കിലൊക്കെ വരുന്ന ചെറിയ ചെറിയ കഥകളൊക്കെ വായിക്കും അങ്ങനെ ഒരുപാട് നീളമുള്ളതൊക്കെ വരുമ്പഴേക്കു ചിലതൊക്കെ ബോറടിക്കുമ്പോൾ അതങ്ങ് നിര്ത്തും പിന്നെ അടുത്തത് ഉണ്ടോ എന്ന് നോക്കി തിരഞ്ഞു പോവും ബുക്കുകള് വായിക്കുന്നത് എപ്പഴും നല്ലത് തന്നെ നമ്മുടെ വായനാ ശീലം വര്ദ്ധിക്കുന്നു വായന ശീലം വര്ദ്ധിപ്പിക്കുക വര്ദ്ധിക്കുന്നത് വഴി അക്ഷരങ്ങളായിട്ട് നല്ല ബന്ധം ഉണ്ടാവും പിന്നെ കുട്ടികൾക്കാണെങ്കിലും വായിക്കാനായിട്ട് നിർബന്ധിക്കാറുണ്ട് അവരുടെ മലയാള ഭാഷ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലായതുകൊണ്ട് ഈ വായന മലയാളത്തിലുള്ള വായന അവരുടെ മലയാളത്തിലെ സബ്ജെക്ട് പഠിക്കാനായിട്ട് അവരെ വളരേയധികം അത് സഹായിക്കുന്നുണ്ട് ഓഡിയോ ബുക്കുകള് അങ്ങനെ കേ കേൾക്കാറില്ല റേഡിയോയിലൊക്കെ വരുന്ന എന്തേലും ഒരു ചെറിയ കഥകൾ പണ്ടെപ്പോഴോ കേട്ടതായിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ വായിക്കാറില്ല കൂടുതലും ബുക്ക് തന്നെയാണ് വായിക്കുന്നത് പിന്നെ കഥാ ബുക്കുകള് നോവല് അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതലും വായിക്കുക അത് വായിക്കുമ്പോൾ അതിന്റെ പിച്ചറും കൂടി നമ്മുടെ മനസ്സില് വരും പിന്നെ സിനിമയുടെക്കെ കഥകൾ ഫോണിലൊക്കെ വരുന്നത് കേൾക്കാറുണ്ട് പിന്നെ ടി വിയിലായാലും ടി വിയില് പൊതുവേ കുറവാണ് ഇപ്പോൾ കൂടുതലും ബുക്ക് തന്നെയാണ് നമ്മൾ വായിക്കുക